ഞാൻ ഇന്നലെ നിങ്ങടെ ഷോപ്പിൽ നിന്ന് ഒരു ഫോണ് വാങ്ങിച്ചിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ ആ ഫോണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ചു നിന്നു വാങ്ങിച്ചതായിരുന്നു ആ ഫോണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഫീച്ചേഴ്സ് ഇതിൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സ്പീഡാണ് നല്ല നെറ്റൊക്കെ ഭയങ്കര സ്പീഡാണ് നല്ല സ്പീഡ് ഉണ്ട് പിന്നെ അതുപോലെ സ്ക്രീനൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നു ഭയങ്കര ഭയങ്കര പൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലയിണ്ട് ഫോണെങ്കിൽ നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫോണാണ് കുറെ നാള് കാത്തു നിന്ന് കാത്തു നിന്ന് പൈസൊക്കെ ഒത്തിരി കൂട്ടി വച്ച് കൂട്ടിവച്ചു വാങ്ങിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഫോണിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നല്ലതായിരിക്കണം അത്രയും നല്ലത് ആയിരിക്കണം ഒരു ഇഷ്ടപ്പെട്ട രീതിക്കായിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അതുപോലെ എനിക്ക് കിട്ടിയ ഫോൺ ആണെങ്കിലും അത്രയും നല്ല നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള നല്ല ഫോണാണ്

അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന ഫോണിൽ ക്യാമറ അടിപൊളി ആയിരിക്കണമെന്ന് അപ്പോൾ ഈ ഫോണെന്ന് പറഞ്ഞാൽ ക്യാമറയാണ് ഞാൻ തുറന്ന പാടെ നോക്കിയത് ഭയങ്കര ഭയങ്കര ക്ലാരിറ്റി ഭയങ്കര ക്ലിയറായിട്ടുള്ള അടിപൊളി ഫോണാണ് ഭയങ്കര നല്ല സൂമിങ് എഫക്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിയാണ് നമുക്ക് അങ്ങ് എത്ര ദൂരം വേണലും അടുത്ത് കാണാൻ വേണ്ടി പറ്റും ഭയങ്കര സൂമിങ് എഫക്ട് ഒക്കെയാണ് നല്ല ഫോണാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലാതായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിലും സെറ്റിംഗ്സ് ഒക്കെ നല്ലതാണ്ണ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കുറെ കുറെ കൂടുതൽ കൂടുതൽ സെറ്റിംഗ്സൊക്കെ മറ്റുള്ള ഫോണിനേക്കാളും കുറച്ചു കൂടീ എന്തൊക്കെയോ പുതിയതായിട്ടൊക്കെ ഇതിനകത്ത് സെറ്റിംഗ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി സ്ക്രീനാണെങ്കിലും

പിന്നെ നെറ്റ് ആണെങ്കിലും ഭയങ്കര നല്ല സ്പീഡ് ആയിട്ട് വൈഫൈ കണക്ഷൻസ് എവരിതിംഗ് ചാർജ് ആണെങ്കിലും ചാർജ്ജും നല്ലപോലെ നിൽക്കുന്നുണ്ട് ഒരുപാട് പെട്ടെന്ന് കയറുവാണെങ്കിലും ചെയ്യുന്നുണ്ട് നമ്മൾ കുത്തിയിട്ട കുറച്ച് ഒരു സമയം ആകുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല ചാർജ് കയറുന്നുണ്ട് ചാർജ് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നൊന്നുമില്ല നല്ലപോലെ നമുക്ക് ഒരുപാട് ഒരു ഒരു ദിവസം ഒരു തവണയെക്കെ ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഇതിനുള്ളൂ നല്ല ചാർജിങ്ങാണ് സ്പീഡായിട്ട് ചാർജ് കയറുന്നുമുണ്ട് അതുപോലെ അത്ര സ്പീഡായിട്ട് ഇറങ്ങുന്നൊന്നുമില്ല അത്യാവശ്യം നല്ല ഒരു ഫോണ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് വല്ല നല്ല പോലെ ഇഷ്ടപ്പെട്ടു ഞാൻ കുറെ ആഗ്രഹിച്ച് വാങ്ങിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ഒരുപാട് ഫീച്ചേഴ്സ് ആണെങ്കിലും എനിക്ക് എല്ലാ ഫീച്ചേഴ്സും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫോണും അത്രമേൽ ഇഷ്ട്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ഇതൊക്കെ എന്താ പറയാ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫീച്ചേഴ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുമ്പം ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിച്ചത് ഇതിൻ്റെ എന്താ പറയാ ലോക്ക് ആണെങ്കിലും ഫിംഗർ പ്രിൻറ്റ് ഒക്കെ ഉണ്ട് ഫിംഗർ പ്രിൻറ്റ് വേണംന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കിട്ടി നല്ല ഫിംഗർ പ്രിൻറ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പൊഴത്തേക്കും തന്നെ ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ എല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു